കാലാവസ്ഥ മാറുമ്പോഴും ഏറ്റവും കൂടുതൽ മനുഷ്യർ കഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലെ മനുഷ്യർ ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ ഇത്പോലെ സസ്യങ്ങളും ചെടികളും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അപ്പം ചൂട് കാലാവസ്ഥയൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ ശരിയായിട്ട് അതിന് എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്താ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും ചെടികൾ കേടായി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒരു ചെടിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായ അത്രയും വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കാനും അതിനാവശ്യത്തിനുള്ള എന്താ സൺ ലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ തണുത്ത കാലാവസ്ഥ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയൊക്കെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മൂടുകയോ ആ ഒരു ടെംപറേച്ചർ ഒന്ന് മാനേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടീട്ട് ജസ്റ്റ് ആ ഒരു ചെടിയെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അതിന് വായുസഞ്ചാരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടീട്ട് അല്ലെങ്കിൽ വായുസഞ്ചാരത്തിന് വേണ്ടീട്ട് ആ ചെടികൾക്ക് ഹോള് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളത്